നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായ വിഭവം ഏതെന്നു വെച്ചാൽ മേമ്പനാട്ടില്ലത്തെ ബാബു നമ്പൂതിരിപ്പാടിൻ്റെ അടിപൊളി കല്യാണസദ്യയാണ് നമ്മുടെ നാട്ടിൽ എന്തു പരിപാടിയുണ്ടെങ്കിലും ആ ഇല്ലത്തെ ആൾക്കാരെയാണ് വിളിക്കാറുള്ളത് അതായത് ഒരു പിറന്നാളാഘോഷമോ അതോ കല്യാണസദ്യയോ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് വീട്ടിൽ പുതുതായി ഒരു വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിനോ ഏതു ഏതു പരിപാടി ആയിക്കോട്ടെ അവരെയാണ് നമ്മൾ വിളിക്കാറുള്ളത് കാരണം അവരുടെ സദ്യ ഒന്നിനൊന്നു മെച്ചമാണ് അവർ പണ്ടേ കൈമാറി കൈമാറി കൊണ്ടുവരുന്നതാണ് അവരുടെ ഓരോരോ ഭക്ഷണ രീതികളും പിന്നെയുള്ളത് അവരുടെ മസാലക്കൂട്ട് അവർ തന്നെ അവരുടെ ഇല്ലത്ത് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന മസാലക്കൂട്ടുകളാണ് ഈ കല്യാണസദ്യയിലൊക്കെ ഈ ഭക്ഷണക്രമത്തിലൊക്കെ ചേർക്കാറുള്ളത് അതായത് അവരുടെ സാമ്പാർ ഒരു സാമ്പാർ കൂട്ടുകറി അവിയൽ ഇവയൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ് കല്യാണത്തിന് പതിനാറ് കൂട്ടം കറികളും പിന്നെ മൂന്ന് പായസവും അച്ചാർ ഉപ്പേരി എന്നുവേണ്ട ഒന്നിനൊന്നു പുറമേ എല്ലാം അടിപൊളിയായിരിക്കും അവരുടെ പതിനാറ് കൂട്ടം കറികളാണ് സാമ്പാർ കൂട്ടുകറി ഇനി സാമ്പാറിന് കൂടാതെ ഒരു മോരുകറിയും ഉണ്ടാകും അതിൻ്റെ കൂടെ ചോറിന് പിന്നെ രണ്ടു തരം ചോറ് പൊന്നിയരി ചോറും മട്ട അതായത് കുത്തരി ചോറ് അതും അവരുടെ സദ്യയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് പിന്നെയുള്ളതാണ് കൂട്ടുകറി ആവിയൽ പച്ചടി പച്ചടിയെ കുറിച്ചു പറയുകയാണ് പച്ചടി മൂന്നു വിധത്തിലുള്ള പച്ചടികളാണുള്ളത് ഒന്ന് ഇഞ്ചി പച്ചടി തക്കാളി പച്ചടി കുമ്പളങ്ങ പച്ചടി എന്നുവേണ്ട മൂന്നുതരം പച്ചടികളും ആ കല്യാണസദ്യക്ക് ലഭ്യമാണ് പിന്നെ അച്ചാർ മൂന്നു തരം അച്ചാർ പപ്പടം തോരൻ തോരൻ തോരനാണെങ്കിൽ ഒരു തോരൻ മാത്രമല്ല ഉണ്ടാവുക അതു പയർ തോരനും ക്യാബേജ് തോരനും അവരുടെ കറികളുടെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് പിന്നെ ഉപ്പേരി പായസം പായസത്തെ കുറിച്ച് പറയുകയേ വേണ്ട പായസം എന്ന് വെച്ചാൽ പാലട പായസവും പ്രഥമനും സേമിയ പായസം അവിടെ പ്രധാന വിഭവമാണ് അതുപോലെ നമ്മുടെ നാട്ടിലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവരുടെ ഇല്ലത്തെ ആൾക്കാരെയാണ് നമ്മൾ ക്ഷണിക്കാറുള്ളത്